നാടോടി നൃത്തവും ബോളിവുട് ബോളിവുഡ് നൃത്തവും ക്ലാസിക്കൽ നൃത്തവും ഇവയെല്ലാം നൃത്തം എന്ന കലാരൂപത്തിൻ്റെ പല വിഭാഗങ്ങളായിട്ടാണ് കാണപ്പെടുന്നത് ഇവയെ ഇവയിലൂടെയെല്ലാം മനുഷ്യമനുഷ്യൻ്റെ ചിന്തകളെയും വിഭാവനകളെയും നമുക്ക് പ്രേക്ഷകനിലേക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കുന്ന സാധിക്ക സാധിക്കാറുണ്ട് നാടോടി നൃത്തം എന്ന് പറയുന്നത് ഒരു ആഘോഷമായ നൃത്ത കലാരൂപമാണ് അതില് വിളവെടുപ്പ് കാലത്തെ പറ്റിയും സാമൂഹിക ഒത്തുചേരലുകളെ പറ്റിയും അവതരിപ്പിക്കുന്ന സാമൂഹിക ഒത്തുചേരലുകളെന്ന് പറയുമ്പഴത്തേനും കല്യാണം പോലെയുള്ള ആഘോഷങ്ങളെയാണ് ഏറ്റവും കൂടുതല് ഈ കലാരൂപത്തിലൂടെ കാണിക്കുന്നത് സന്തോഷം സങ്കടം ഒര് കർഷകൻ്റെ ജീവിതം സാധാരണക്കാരൻ്റെ ജീവിതം ഇവയെല്ലാമാണ് നാടോടി നൃത്തത്തിലൂടെ നമുക്ക് ഏറ്റവും കൂടുതലായി കാണിക്കാൻ പറ്റുന്നത് മനുഷ്യ മനസ്സുകളെ കയ്യിലെടുക്കാൻ പറ്റുന്ന ഒരു കഥ എന്ന രീതിയില് അവതരിപ്പിക്കാൻ പറ്റുന്ന ഒര് നൃത്തകലാരൂപമാണ് നാടോടി നൃത്തം എന്ന് പറയുന്നത് ബോളിവുഡ് ബോളിവുഡ് നൃത്തം ആകട്ടെ ഇന്ത്യൻ സിനിമകളിൽ ഇന്ത്യൻ സിനിമകളിൽ ഏറ്റവും കൂടുതല് കണ്ടുവരുന്ന ഒന്നാണ് ബോളിവുഡ് ബോളിവുഡ് നൃത്തങ്ങൾ എന്ന് പറയുന്നത് അതിലാണെങ്കിൽ നമുക്ക് നാടോടി നൃത്തം ക്ലാസ്സിക്കൽ കലാരൂപവും അങ്ങനെ പലതരത്തിലുള്ള കലാരൂപത്തിൻ്റെ ഒരു ആവിഷ്കരമണം ആണ് ബോളിവുഡ് നൃത്ത രൂപങ്ങൾ എന്ന് പറയുന്നത് അതേ സമയം ക്ലാസ്സിക്കൽ നൃത്തം എന്ന് പറയുന്നത് ക്ലാസ്സിക്കൽ നൃത്തം എന്ന് പറയുന്നത് ഒരു ആത്മീയമായ ഒരു നൃത്ത കലാരൂപമായിട്ട് കാണപ്പെടുന്നെ അവയ്ക്ക് ചിട്ടയായ ഓരോ രീതികളും ചിട്ടയായ മുദ്രകളും പ്രാക്ടീസുകളും ആവശ്യമായിട്ടുണ്ട് എല്ലാ ഡാൻസ് കലാരൂപങ്ങൾക്കും പലതവണ ആവർത്തിക്കും ആവർത്തിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു ഓരോ ഒരോ നൃത്ത കലാ രൂപത്തിനും അതിൻ്റെതായ ഓരോ ഓരോരോ ആത്മീയതയുണ്ട് നാടോടിനൃത്തത്തിൽ നമ്മളുടെ അസ്സം നമ്മുടെ സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യൻ മനുഷ്യനെപറ്റി പറയുന്ന ആഘോഷങ്ങൾ അവരുടെ ജീവിത്തത്തെ പറ്റി പറയുന്ന അവരുടെ ജീവിത കഥ പറയുന്ന എന്നാ ബോളിവുഡ് നൃത്തത്തെ ഇന്ത്യൻ സിനിമാ സിനിമ കൊണ്ടുവന്നു എല്ലാതര കലാരൂപത്തിൻ്റെയും ഒരു ഉൾക്ക് ഉള്ളടക്കമാണ് ബോളിവുഡ് നൃത്ത കലാരൂപം എന്ന് പറയുന്നത് എന്നാൽ ക്ലാസ്സിക്കൽ ക്ലാസ്സിക്കൽ നൃത്ത കലാരൂപമാവട്ടെ ഒരു ആത്മീയതയിൽ നിറഞ്ഞ ഒരു വിശുദ്ധിയിൽ നിറഞ്ഞ അല്ലെങ്കിൽ തന്നെ ചിട്ടയായ ഒരു ജീവിതത്തിൽ വളരെ നിറഞ്ഞ ഒരു കലാരൂപമായിട്ട് നമുക്ക് ക്ലാസ്സിക്കൽ നൃത്ത രൂപത്തെ കാണാം ഇവയെല്ലാം ഇവയ് ഇവയെല്ലാം പലതരത്തിലുള്ള ഒരു പല വിഭാഗത്തിലുള്ള നൃത്ത കലാരൂപമാണെങ്കിലും നൃത്തമെന്ന കലാരൂപത്തിൻ്റെ അടിയിൽവരുന്നവയാണിതെല്ലാം നൃത്തമെന്ന കലാരൂപം എന്താണ് ഒരു മനുഷ്യൻ്റെ ചിന്തയെപോലും പ്രകടമാക്കാൻ ചിന്തയും വികാരങ്ങളെയും പ്രകടമാക്കാൻ സാധിക്കുന്ന ഒന്നാണ് നൃത്തം എന്ന കലാരൂപം അതുകൊണ്ട് തന്നെ ഈ മൂന്ന് നൃത്ത വിഭാഗത്തിനും സമാനതകൾ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് വേണം പറയാൻ ഈ കലാരൂപങ്ങൾക്ക് കാരണം ഈ ഓരോ കലാരൂപങ്ങളിലും ഒരു മനുഷ്യ മനസ്സിലെ ചിന്ത എങ്കിലും ചിന്തയെ പ്രകടമാക്കുക എന്നുള്ളതാണ് നടക്കുന്നത് നാടോടി നൃത്തത്തിലായാലും ക്ലാസ്സിക്കൽ നൃത്തത്തിലായാലും അതേപോലെ തന്നെ ബോളിവുഡ് നൃത്തത്തിലായാലും ഒരു മനുഷ്യമനസ്സിൻ്റെ ചിന്തകളെ ഒരു കഥയെന്ന രീതിയിൽ കഥ എന്ന എന്നപോലെ അവതരിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് ഈ ഓരോ ഓരോ നൃത്തകലാരൂപത്തിന്